ആരോഗ്യമേഖലയിലെ അഴിമതിയെക്കുറിച്ച് അറിയുമോയെന്ന് ചോദിച്ചാൽ ആരോഗ്യമേഖലയിൽ ഇപ്പോൾ അഴിമതി ഉണ്ടോയെന്ന് എല്ലാ മേഖലയിലും ഇപ്പോൾ അഴിമതി മാത്രമാണ് ഉള്ളത് പൊതുവെ പിന്നെ ആരോഗ്യമേഖലയിലും അഴിമതി ഉണ്ടാകാതിരിക്കില്ല ഞാൻ ഇതുവരെ ആരോഗ്യമേഖലയിൽ ഒരു അഴിമതിയ്ക്ക് ഇരയായിട്ടില്ല അതുകൊണ്ടുതന്നെ എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലെങ്കിലും ഏതു മന്ത്രിസഭ അധികാരത്തിൽ വന്നാലും ആരോഗ്യമേഖലയിൽ അതിൻ്റേതായ അഴിമതി എന്തായാലും ഉണ്ടാവും ആരോഗ്യമേഖയിൽ മാത്രമല്ല ഏതു മേഖല എടുത്താലും അതിൽ അതിൻ്റേതായ അഴിമതികൾ ഉണ്ടാവും ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്നു പറഞ്ഞാൽ കൈക്കൂലി തന്നെയാണ് അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം എന്നു പറഞ്ഞത് പിന്നെ ആരോഗ്യമേഖലയ്ക്ക് ആയിട്ട് സെപ്പറേറ്റ് ഒരു അഴിമതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ശരിക്കും പറയാൻ എൻ്റെ കയ്യിൽ ഇല്ല കാരണം ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു ആ ഇരയായിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ടുതന്നെ ആരോഗ്യമേഖലയിലെ അഴിമതിയെപ്പറ്റി എനിക്ക് ഒരു അഭിപ്രായം ഇല്ല